കേരളത്തിലെ ഒരു പ്രാദേശിക സമൂഹം പരസ്പരം പിന്തുണയ്ക്കാനായിട്ട് ഒരുപാട് കൊളാബ്രേഷൻ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻലൊക്കെ ഏർ ഏർപ്പെടാറുണ്ട് അതായത് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും അറിവ് പങ്കിടുക എന്നുള്ളതാണ് ഇതില് മെയ്നായിട്ട് നമുക്ക് കാണാനുള്ളത് അതുവഴി അങ്ങനെ അറിവ് പങ്കിടുമ്പോൾ അതുവഴി നമുക്ക് നല്ല നല്ല ബിസിനസ്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൂടാതെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കാര്യം നമക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് എന്ന് പറഞ്ഞാല് അതായത് സി എസ് ആർ എന്ന് പറയുന്നത് ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ അതൊര് ബിസിനസ്സ് മോഡലാണ് അതായത് ഒരു കമ്പനി ഇരിക്കുന്ന സ്ഥലം ആ കമ്പനിക്ക് കമ്പനിയോട് മാത്രമല്ല ഉത്തരവാദിത്തം ഉണ്ടാവുക ആ കമ്പനി ഇരിക്കുന്ന സ്ഥലത്തും അവരുടെ ചുറ്റുപാടും അവരുടെ സമൂഹത്തോടും ഒരു റെസ്പോൺസിബിലിറ്റി

അപ്പം ആ റെസ്പോൺസിബിലിറ്റി ചെയ്തു തീർക്കേണ്ടത് ആ ഒരു കമ്പനിയടെ ഒരു കടമയാണ് അതായത് സമൂഹത്തിലെ വിവിധ വശങ്ങളിൽ ഉള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് വരാനും അതിലൂടെ കമ്പനിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഇമേജ് ഉയർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ അല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് ഈ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയെ നമുക്ക് പല കാര്യങ്ങളായിട്ട് ചെയ്യാം അതായത് നമുക്ക് വേണമെങ്കില് സമൂഹത്തില് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം അല്ലെങ്കില് ഈ പരിസ്ഥിതി സംരക്ഷണം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ച്ചര് ഡെവലപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യം അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിനെ തന്നെ റീബിൽഡ് ചെയ്യാം അതായത് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ചികിത്സാ സഹായം ചെയ്യുന്നതും അതുപോലെതന്നെ കുട്ടികൾക്ക് പഠിക്കാൻ സഹായിക്കുന്നത് ബുക്ക് വാങ്ങിക്കൊടുക്കുന്നതാവട്ടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതാവട്ടെ എല്ലാം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരും അതുപോലെതന്നെ നമ്മൾ കേരളത്തില് നോക്കിയാല് ഒരുപാട് കമ്പനീസ് ഒരുപാട് കോർപ്പറേറ്റ്സ് നമ്മടെ കേരളത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊണ്ട് ഒരുപാട് ഡെവലപ്മെന്റ് കൊണ്ട് വന്നിട്ടൊണ്ട് അതായത് ബ്രിഡ്ജ് ഒണ്ടാക്കിക്കൊടുക്കാ റോഡ് ശരിയാക്കുക അതായത് ആ ഒര് കമ്പനി ഇരിക്കുന്നതെവിടെയാണോ അതിന് ചുറ്റുപാടും നല്ല ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ്സ് ആ ഒരു കമ്പനി കൊണ്ടുവരും അതിനെയാണ് സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ കാര്യം എല്ലാ കമ്പനികൾ ചെയ്യുകയും വേണം അത് നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസില് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വെള്ളപ്പൊക്കം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നത് ആ ഒര് സമയത്ത് ഇൻ കേരളത്തിലെ ഒട്ടുമിക്ക കമ്പനീസും കൈത്താങ്ങായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ അടുത്ത് ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കാനും ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലം റെഡിയാക്കി കൊടുക്കാനും അവർക്ക് വസ്ത്രങ്ങൾ റെഡിയാക്കി കൊടുക്കാനും ഈ വെള്ളപ്പൊക്കത്തിൽ വീട് പോയവർക്ക് ഒര് കൈത്താങ്ങായിട്ട് പൈസ കൊടുത്തും അതുപോലെതന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്തും ഒരുപാട് കോർപ്പറേറ്റ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട് അത്കൊണ്ട്തന്നെ കേരളത്തിനും അതുപോലെതന്നെ ഗവൺമെന്റിനും കോർപ്പറേറ്റ്സിനോട് ഒരുപാട് കടപ്പാടുമുണ്ട് നമ്മുടെ കേരളത്തിൽ കോർപ്പറേറ്റ്സ് വന്നത് അതായത് കമ്പനികൾ വന്നതിന് ശേഷം ഒരു പ്രാദേശിക സമൂഹം വന്നതിന് ശേഷമാണ് നമ്മളുടെ കേരളം ഇത്രയും ഉയർന്നത് നമ്മുടെ സർക്കാർ ഒരുപാട് അതിനെ സഹായിച്ചിട്ടുമുണ്ട് അതായത് ഒരു ഐ ടി പാർക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ച് കമ്പനി കേരളത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ അതുപോലെതന്നെ നമ്മളുടെ ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ പുതിയ പുതിയ എക്യുപ്മെൻസ് ഈ കോർപ്പറേറ്റ്സ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളുടെ പ്രാദേശിക സമൂഹം പിന്തുടരുന്നുണ്ട്